മെയിനായിട്ട് വെള്ളം നമുക്കാവശ്യം ഉള്ളത് നമുക്ക് കുടിക്കാൻ തന്നെയാണ് കുടിക്കാണ്ട് ഒരു രക്ഷയില്ല നമുക്ക് കാരണം എന്ത് എന്നു വച്ചു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ വരെ ഇപ്പം കിടന്നു കഴിഞ്ഞാലടക്കം നമ്മൾക്ക് വെള്ളം കുടിക്കേണ്ട ഒരാവശ്യം ഉണ്ട് അപ്പം നല്ല വെള്ളമാണെങ്കിലേ നമ്മൾ കുടിക്കുകയുള്ളൂ അപ്പോൾ ചളിവെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ നമ്മൾ കുടിക്കില്ലല്ലോ അപ്പം വെള്ളം നമുക്ക് ആവശ്യമുള്ളൊരു എന്താ പറയുക ആവശ്യമുള്ളൊരു വസ്തുവാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാചകത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഇപ്പോൾ എ ടു സെഡ് സാധനത്തിന് ആണെങ്കിലും വെള്ളം വേണം ഇപ്പോൾ നമുക്ക് പല്ലു തേക്കാനാണെങ്കിൽ പല്ല് തേച്ച് കഴിഞ്ഞ് വായ കഴുകാനാണെങ്കിൽ മുഖം കഴുകാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്കെന്തെങ്കിലും ഇപ്പം കണ്ണിലെന്തെങ്കിലും പൊടി പോയിക്കഴിഞ്ഞാൽ അതിന് വെള്ളം ആവശ്യമാണ് പിന്നെ ഇപ്പം നമ്മൾക്ക് ബാത്ത് റൂമിൽ പോകുവാൻ കുളിക്കാൻ നമുക്കിപ്പം മെയിനായിട്ട് നമുക്ക് കുടിക്കാനാണ് വെള്ളം ആവശ്യമുള്ളത് പിന്നെ കുളിക്കാൻ ബാത്ത് റൂമിൽ പോകുവാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വെള്ളം ആവശ്യമുള്ളൊരു വസ്തുവാണ് വെള്ളമില്ലാണ്ട് നമ്മൾക്കൊരിക്കലും ജീവിക്കാൻ തന്നെ കഴിയില്ല നമ്മുടെ നമ്മൾ കുറച്ചുനേരം ഒരു ഇപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം വെള്ളം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്